സാങ്കേതികവിദ്യ വളർന്നത് അനുസരിച്ചും ഇൻ്റർനെറ്റിൻ്റെ വളർച്ചക്കൊപ്പം മലയാള ഭാഷയിലൊത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മലയാള ഭാഷയിൽ ലിപിക്ക് മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തൊക്കെയാണങ്കിൽ കൂട്ടിച്ചേർത്ത് ചേർത്തൊക്കെ ആയിരുന്നു എഴുതുന്നത് ഇപ്പോൾ ഓരോ ക്രാ കെ കൃ എന്നുള്ളതിനൊക്കെ ആ ക്നാനായി ക്യായും കായും നായും കൂടി ചേർത്തായിരുന്നു എഴുതുന്നത് ഇപ്പോൾ അച്ചടി ഭാഷ വന്നപ്പോൾ കായുടെ മുകളിൽ ചന്ദ്രക്കല ഇട്ടിട്ട് ന എഴുതുന്നു അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണെങ്കിൽ നമ്മൾ എഴുത്ത് പണ്ടൊക്കെ മലയാള കാര്യങ്ങൾ എഴുതി ചേർക്കുവായിരുന്നു അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഒത്തിരി ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് സ്പീഡിൽ ഓരോ ഭാഷയുടെ കുറിച്ചും എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ട് നേരത്തെയൊക്കെ നമ്മൾ അച്ചടിച്ചായിരുന്നു എടുക്കുന്നത് ഇപ്പം അത് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് മലയാള ഭാഷയുടെ വളർച്ചക്ക് ഒത്തിരി സംഭാവനകൾ ഇൻ്റർനെറ്റും സാങ്കേതിക വിദ്യ എന്നുള്ളത് നേടിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഭാഷ കൈകാര്യം ചെയ്യുന്ന അച്ചടി ഭാഷയും ഓരോ ശബ്ദം സംസാരിക്കുന്ന ഭാഷയുടെ ഉച്ചാരണം കൊണ്ട് നമ്മൾ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അങ്ങന അത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്താൽ ഇത് വന്നതോടെ അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളും